ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രാദേശികമായിട്ട് കലാകാരന്മാരെ പിന്തുണക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് അപ്പോൾ നല്ല രീതിയിലുള്ള കലാകാരന്മാരും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ പെയിൻ്റിങ്ങ് കൊണ്ട് തന്നെ ജീവിക്കുന്ന ഇഷ്ടംപോലെ കലാകാരന്മാർ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ഉണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ഈ ബീച്ച് ബീച്ചിലൊക്കെ നല്ല രീതിയിലുള്ള ജനപ്രവാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം അവിടെയൊക്കെ ഇരുന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ വന്ന് വരക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ബീച്ച് സൈഡുകളിലൊക്കെ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു അതായത് പരിശീലനവും കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ വരയ്ക്കുന്നുണ്ട് അപ്പം അവർക്കു കൂടുതലായിട്ടും നമ്മൾ നല്ല രീതിയിലുള്ള പ്രോത്സാഹനവും കാര്യങ്ങളും ഒക്കെ നൽകിയാൽ മാത്രമേ അവരൊക്കെ നല്ല രീതിയിൽ നമ്മുടെ നാടിനു വേണ്ടിയിട്ടും എല്ലാം നല്ല രീതിയിൽനിന്നു നല്ല നിലയിലേക്ക് എത്തുക ഇപ്പം പല രീതിയിലുമുള്ള ചിത്രരചന മത്സരങ്ങളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് അവരെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹി പ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ആൾക്കാരെ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം പലരീതിയിലുള്ള സൊസൈറ്റികൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ നല്ല രീതിയിൽ ചിത്രം വരച്ചു എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പല രീതിയിലുള്ള ആൾക്കാരും പല ഇതിൽ ആയി മാറി മാറും അപ്പം നമുക്ക് കലാകാരന്മാരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം